വിൽട്ടൻ റെസ്റ്റോറന്റ് അല്ലെ ഞാനവിടുന്ന് രണ്ടുദിവസം മുൻപ് ഒരു കുറച്ച് ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏയ് അല്ല അല്ല അതിന് മോശം പറയാൻ വേണ്ടിയിട്ടല്ല അല്ല നല്ല അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആയിരുന്നു അതേയതേയതേ എനിക്ക് വളരെയധികം ഇഷ്ട്ടപ്പെട്ടു നല്ലൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിരിയാണി എനിക്ക് എന്താ പറയാ നല്ലൊരു സ്പൈസിയായിട്ടുള്ളൊരു ബിരിയാണീം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കേ ഓക്കേ ശരി അപ്പോൾ എനിക്കത് എന്താ പറയാ വല്ലാണ്ട് ഇഷ്ട്ടപ്പെട്ടു എന്താ പറയാ നിങ്ങളുടെ ഇത്രേം ഞാനിപ്പോൾ കഴിച്ചതിൽ വെച്ചിട്ട് നല്ലൊരു ബിരിയാണീം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇന്നുംകൂടെ അതുപോലത്തെ ഒരു ബിരിയാണി എനിക്കിന്നും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു വാ നല്ല ടേസ്റ്റ് ഉള്ളോണ്ടാണ് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതേയതേയതേ ഇന്ന് ഒരു ഇപ്പോൾത്തന്നെ ഓർഡർ ഞാൻ ഓർഡർ ചെയ്തേക്കാം പൈസ നിങ്ങളുടെ ഡെലിവറി ബോയ്യന്റെ അടുത്തേക്ക് ഞാൻ കൊടുത്തയയ്ക്കാം അന്ന് അന്ന് കൊടുത്ത പോലെ തന്നെ അപ്പോൾ ഇന്ന് ഒന്ന് ഒരു ഒരു ഒരുമണിയാകുമ്പോഴത്തേക്ക് ഒന്ന് കൊണ്ടുതരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓ ഓക്കേ ഓക്കേ അത് അന്നത്തെ അതുപോലത്തെ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ട്ടപ്പെട്ടു അതാണ് ഓ ഓക്കേ ഓക്കേ എന്നാൽ ഒന്നുകൊണ്ടുതന്നേക്ക് കേട്ടോ ഓക്കേ ശരി